ഗ്രാമീണ സമുദായത്തിലെ യുവതലമുറ കൃഷിയെ ഒരു തൊഴിലായോ അല്ലെങ്കിൽ ഒരു ജീവിത മാർഗ്ഗമായോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇന്നത്തെ യുവതലമുറയ്ക്ക് കൃഷിയോട് ഒരു ആഭിമുഖ്യമില്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത് ആധുനിക ലോകത്തിൽ ഇപ്പോൾ പഴയ പുതിയ തലമുറ കൃഷീലേക്കൊന്നും എടന്ന് ഇറങ്ങുന്നില്ല പുതിയ തലമുറ മറ്റേ ഐ റ്റി മേഖലകളിലും മറ്റേ തൊഴിൽ മേഖലകളിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ ലേക്കൊക്കെ പോകുന്ന ആ ഒരു പ്രവണതയാണ് കാണുന്നത് അവർക്ക് കൃഷിയോട് വലിയ താല്പര്യോന്നുല്ല കൃഷി ശരിക്കും കൃഷിയൊരു നല്ല ജീവനോപാധിയാണ് അത് ഇന്നത്തെ യുവതലമുറക്ക് അറിയില്ല ഇന്നിപ്പം കാണുന്ന യുവതലമുറ കൃഷി അതല്ല എങ്കിൽ കാർഷിക മേഖലയെ തീർത്തും ഒഴിവാക്കിയ ഒരു അവസ്ഥയിലാണ് കൃഷിക്ക് വേണ്ടുന്ന പ്രായോഗികമായ ഒരു അറിവോ കാര്യങ്ങളോ ഒന്നും യുവതലമുറക്ക് ഇന്ന് കൃഷയെക്കുറിച്ചില്ല അവർക്ക് അങ്ങനൊരു ട്രെയിനിങ് കൊടുക്കാനോ അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ചവരെ പഠിപ്പിക്കാനോ ഒന്നും ഉള്ള ഒരു കാര്യങ്ങളില്ല എല്ലാം ഒരു ജീവിത്തിൻ്റൊരു ഭാഗം ആണ് കൃഷി എന്ന് എന്ന് എങ്കീപ്പോലും യുവതലമുറയ്ക്ക് അതിനോടൊരു ആഭിമുഖ്യമില്ലാത്ത ഒരവസ്ഥയാണിന്ന് കാണുന്നത് പിന്നെ കുറെ പേരൊക്കെ കൃഷീലേക്ക് ഉണ്ട് അവരൊക്കെ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാൽ മറ്റേ ഈ ട്രാക്ടറ് അത്പോലുള്ള കൃഷി ഉപകരണങ്ങൾ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പഴയ പോലെ തൂമ്പായോ കാര്യങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇങ്ങനെ ഒക്കെ വളരെ നല്ല രീതിയിൽ പോകേണ്ടൊരു മേഖലയാണ് കാർഷിക മേഖല യുവതലമുറക്ക് അതിനോടൊരു ആഭിമുഖ്യമില്ലാത്തതിൻ്റെ പേരിലാണ് കാർഷിക മേഖല ഇങ്ങനെ ഇത്രയും ഇതായി പോകുന്നത് പ്രായമായ കാരണന്മാരൊക്കെ ഇപ്പം കൃഷിയെ ഒരുവിധം സ്നേഹിക്കുകയാ അല്ലെങ്കിൽ കൃഷി യിലേക്ക് ഇറങ്ങോക്കെ ചെയ്യുന്നുള്ളു അവരുടെ ആ ഒരു രീതിയും കാര്യങ്ങളുവൊക്കെ വെച്ച് നോക്കുമ്പോൾ കൃഷി അവർക്ക് അത്ര താല്പര്യമില്ലാത്ത രീതീലാണ് കാര്യങ്ങൾ കാണുന്നത് ഇന്നത്തെ കൃഷിയെ സംബന്ധിചെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ പ്രകൃതിയെ ആശ്രയിച്ചുള്ള ഒരു കൃഷിയാണ് മനുഷ്യൻ നടത്തുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങളും വരൾച്ചയും അത്പോലുള്ള മറ്റ് പ്രകൃതി ക്ഷോഭങ്ങൾ ഒക്കെ കാരണം കൃഷി വളരെ ശോചനീയമായ ഒരവസ്ഥയിലേക്ക് ആണിന്ന് പോകുന്നത് അത് കൊണ്ടൊക്കെയാവാം യുവതലമുറ ഈ കൃഷിയിൽ നിന്നും അകന്ന് നിൽക്കാനൊക്കെ ഉണ്ടാകുന്ന കാരണങ്ങൾ ഒരു പരിധിവരെ കൃഷി നല്ലതാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് യുവതലമുറ കൃഷീലേക്ക് ഇറങ്ങണം എന്നൊക്കെ ആണെൻ്റെ അഭിപ്രായം പക്ഷേ ഇന്നാരും ഇറങ്ങുന്നില്ല അവർക്ക് അതിനുള്ള സമയമില്ല അവർ ഒരു രീതീലും മണ്ണിലേക്ക് ഇറങ്ങി പണി എടുക്കാനോ അല്ലേ കാർഷികമേഖലയിലേക്ക് കടക്കാനോ ചിന്തിക്കാനോവൊന്നും അവർ തയ്യാറാകുന്നില്ല അതൊരു ന്യൂനത തന്നെയാണ് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ് യുവതലമുറ കൃഷീലേക്ക് തിരിച്ച് വരണം അവർ നല്ല രീതിയിൽ കൃഷി കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം അങ്ങനുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ട് വരാനായിട്ടുള്ള ശ്രമം മുതിർന്നവരുടെ ഭാഗത്ത് നിന്നുണ്ടാവണം ഗവൺമെൻ്റിൻ്റെ ഭാത്ത്ന്നുണ്ടാവണം അതുപോലെ ജനപ്രതിനിധികൾ ഗെവൺമെൻ്റ് അവർ ഗെവൺമെൻ്റ് അതിനുള്ള പ്രോത്സാഹങ്ങളൊക്കെ കൊടുക്കണം കൃഷി പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം